ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്ക് നാം ആദ്യം ആശ്രയിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആണ് പോലീസ് സ്റ്റേഷനില് പോയി പരാതി പറയുകയും അവർ വന്ന് ആ പ്രശ്നം തീർക്കാൻ ശ്രമിക്കും ശ്രമിക്കും പക്ഷേ അവിടെ പ്രശ്നങ്ങൾ തീരില്ലാ എങ്കിൽ നമ്മൾ നേരെ കോടതിയെ സമീപിക്കുന്നു ഉൾനാടുകളിൽ ഭൂസ്വത്തു സ്വന്തമാക്കാൻ വേണ്ടി കർഷകർ തമ്മിൽ വഴക്കിടാറുണ്ട് അതായത് അവരുടെ യഥാ വരമ്പ് ഇതൊക്കെ അടുത്ത കൃഷിക്കാരൻ വെട്ടിയെടുക്കും അല്ലെങ്കിൽ വേലിയൊല്ലാം മാറ്റി കെട്ടും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത് അതായത് പരസ്പരം വഴക്കിനുള്ള അവസരമാണ് ഈ ഭൂമിയുടെ തർക്കം കാരണം ഉണ്ടാവുന്നത് കർഷകർ പിന്നെ അവരുടെ കൃഷിസ്ഥലം മറ്റുള്ളവർ കെളെച്ചെടുക്കുമ്പോൾ നോക്കി നിൽക്കുകയും അല്ലെങ്കിൽ അത് അവര് കാണാതിരിക്കുന്ന സമയത്താണ് അവർ കിളച്ചെടുക്കുക കിളച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കുമ്പഴാണ് അവർക്ക് മനസ്സിലാവുക അവരുടെ ഭൂമിയെല്ലാം മറ്റുള്ളവർ കിളച്ചെടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ കൈവശപ്പെടുത്തിയെന്ന് മനസ്സിലാവുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ആദ്യം പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നു അവിടെ പ്രശ്നങ്ങൾ തീരാതെ വരുമ്പോൾ നേരെ കോടതിയിലേക്ക് കോടതിയിൽ ചെന്ന് പരാതി കൊടുക്കുന്നു അതിൽ അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക